കൂടുതലായിട്ടും ചിത്രങ്ങൾ എടുക്കുന്നത് പ്രകൃതീൻ്റെ ആയിരിക്കും കാരണം പ്രകൃതി എന്ന് പറയുന്നത് എപ്പോളും കാണാൻ നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ എപ്പോഴും സന്തോഷം തരുന്നൊരു സംഭവമാണ് പക്ഷേ അത് ആൾക്കാർ നശിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് വേറെ കാര്യം അതേപോലെ തന്നെ കാടുകൾ കയറിയിട്ട് മൃഗങ്ങളെ വേട്ടയാടുക അല്ലെങ്കിൽ അവർക്കൊരു ശല്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് പക്ഷേ ചിത്രങ്ങൾ എടുക്കുമ്പോൾ നമുക്കതിൻ്റെ സൗന്ദര്യം മനസ്സിലാവും നമ്മൾ അതിനെ കാത്തു സൂക്ഷിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പം പിന്നെ പിന്നെ ഒരു താൽപര്യം എന്ന് പറഞ്ഞത് കുടുംബ ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം ഉള്ള നല്ല നിമിഷങ്ങൾ ചിത്രങ്ങൾ എടുക്കുക എന്നുള്ളതാണ് കാരണം അത് നമുക്ക് പിന്നെ എപ്പോളെങ്കിലും ആ ചിത്രം കണ്ടിട്ട് സന്തോഷിക്കേണ്ട ഒരു നിമിഷം വരും ദു ഖമാണെന്നുണ്ടെങ്കിലും സന്തോഷമാണെന്നുണ്ടെങ്കിലും ഒക്കെ ചിത്രങ്ങൾ എടുത്ത് വയ്ക്കുക കാരണം ആ ഒരു സമയത്തുള്ള സന്തോഷം അല്ലെങ്കിൽ സങ്കടം നമുക്ക് പിന്നെ ഒരു സമയത്ത് ചിലപ്പം വേറെ ഒരു സന്തോഷം അല്ലെങ്കിൽ അധികം സന്തോഷം ഒക്കെ ഉണ്ടാക്കും എന്നാൽ എല്ലാ നിമിഷവും നമുക്ക് അപ്പം ഭയങ്കര പ്രാധാന്യം ഉള്ളതാണ് അപ്പം കൂടുതൽ എൻ്റെ താൽപര്യം പ്രകൃതിയായിട്ടുള്ള ചിത്രങ്ങളെടുക്കാനും കുടുംബസമേതമുള്ള ചിത്രങ്ങൾ എടുക്കാനാണ് വിദേശത്തൊക്കെ പ്രകൃതിയായിട്ട് ഭയങ്കര നല്ല ചിത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും അവിടെ ഒക്കെ ഒന്ന് പോയിട്ട് ആ നേച്ചറിൻ്റെ അല്ലെങ്കിൽ പ്രകൃതീൻ്റെ കൂടെ നിന്നിട്ട് ചിത്രങ്ങൾ എടുക്കുക എന്നുള്ളത് വലിയ ആഗ്രഹമാണ് സ്വിറ്റ്സർലാൻഡിലൊക്കെ ആണെന്നുണ്ടെങ്കിലും പർവ്വതനിരകൾ പിന്നെ ആ പർവ്വതനിരകളിലൊക്കെ നിറച്ച് പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരൂ വിനോദസഞ്ചാര കേന്ദ്രം പോലെയാണ് അവിടുത്തെ എല്ലാ ഗ്രാമങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്തരം ഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് ചിത്രം എടുക്കാൻ കുടുംബസമേതം ചിത്രം എടുക്കാനൊക്കെ നല്ല താൽപര്യമുണ്ട്